ആ ഓക്കെ പറഞ്ഞോ പറഞ്ഞോളൂ നിങ്ങൾ എത്ര മണിയാവുമ്പഴാണ് എയർപോട്ടിൽ എത്തുന്നത് ഓക്കെ സാറേ ഞാൻ പന്ത്രണ്ടരയാവുമ്പത്തേന് ഏർപ്പോട്ടീ കാണും ഈ നമ്പറ് തന്നെ നിങ്ങൾ വേറെ ഫ്ലൈറ്റേന്ന് ഇറങ്ങിയിട്ട് ആ ഉണ്ട് ഉണ്ട് ആ ആ ആ അമ്പലത്തിൽ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ആദ്യം നമ്മൾ ഞാൻ പന്ത്രണ്ടരയാവുമ്പത്തേനും അവിടെ എയർപോട്ടിൽ കാണും ഇന്നോവയല്ലേ നിങ്ങൾക്ക് വേണ്ടത് ഇന്നോവെ തന്നെ എടുത്ത് വരാം ഓക്കെ അപ്പം നമുക്ക് അവിടുന്ന് നേരെ നൂറ്റീ ഇരുന്നൂറ് സംതിംഗിന് അടുത്ത് കിലോമീറ്റർ ഉണ്ട് അവിടം വരെ അവിടെ അവിടുത്തെ ക്ഷേത്രത്തിൽ മുണ്ട് ഉടുത്ത് മാത്രമേ കയറത്തുള്ളൂ കയറാൻ സമ്മതിക്കത്തുള്ളൂ ഷർട്ട് സ്ത്രീകൾക്കൊന്നും കുഴപ്പം ഒന്നും ഇല്ല സ്ത്രീകൾക്ക് കുഴപ്പം ഒന്നും ഇല്ല പിന്നെ മുടി അഴിച്ചിട്ട് കയറാൻ പറ്റത്തില്ല സാരി സാരി സാരി സാരി മാത്രമേ പറ്റത്തുള്ളൂ മുണ്ടും മുണ്ട് മാത്രമേ ഉടുക്കാൻ പറ്റത്തുള്ളൂ വേറെ ഒന്നും ഉടുക്കാൻ പറ്റത്തില്ല സമയം രാവിലെ അഞ്ചരക്കാണ് തുറക്കുന്നത് അഞ്ചരക്ക് തുറക്കുന്നു നമുക്ക് അപ്പോൾ തൊട്ട് തന്നെ കയറാം പത്തര പതിനൊന്ന് മണിയാവുമ്പത്തേനും നട അടക്കത്തുള്ളൂ അപ്പോൾ നമുക്ക് അവിടെ കയറുക എന്ന് പറഞ്ഞാൽ എക്സ്പെൻസ് എന്ന് പറഞ്ഞാൽ ഇപ്പം വണ്ടിക്കൂലി പിന്നെ നിങ്ങൾക്ക് അവിടെ കയറുമ്പോൾ നിങ്ങളും അത് നിങ്ങളിലാണത് ക്യാഷ് പോവുന്നേ ആ ഓ തൊട്ടടുത്ത് തന്നെ ലോഡ്ജ് ഉണ്ട് നമ്മൾ ലോഡ്ജ് ഉണ്ട് അല്ലാതെ വല്ല ഹോട്ടൽസുണ്ട് പ്രശ്നം അല്ല നമുക്ക് എവിടെയാണെന്ന് വെച്ചാൽ പറഞ്ഞേച്ചാൽ നമുക്ക് അവിടെ അറേഞ്ച് ചെയ്യാം ഓക്കെ ഫാമിലിയായതുകൊണ്ട് നമക്ക് നല്ല ലോഡ്ജ് നല്ല നല്ല ഒരു ഹോട്ടല് നമുക്ക് തന്നെ അവിടത്തന്നെ അറേഞ്ച് ചെയ്തുതരാം എല്ലാ അവിടെത്തന്നെ എല്ലാം എല്ലാം അവിടത്തന്നെ ഹോട്ടല് തന്നെയാണ് നിങ്ങൾ അവിടെ ഹോട്ടലി കയറുമ്പോൾ നിങ്ങൾക്ക് തന്നെ അവർ പറഞ്ഞുതരും എന്നുവെച്ചാൽ അവിടെ ഫുഡും ഫുഡും റൂമും എല്ലാം ഒരു അവിടെ തന്നെയാണ് ഫുഡിന് എക്സ്ട്രാ പൈസയാണ് ആ കൂടെയുണ്ടാവും പിന്നെ ഫുഡിന് എക്സ്ട്രാ പൈസയാ കേട്ടോ ആ അതെ ഈ വെജൂണ്ട് നോൺവെജൂണ്ട് നിങ്ങൾക്ക് വേണ്ടത് എന്ന് വെച്ചാൽ അത് വെജാണേ വെജ് കൊണ്ടുതരും ഏ അതല്ല ആ ഓ അമ്പലത്തിനകത്തല്ല അമ്പലത്തിന് പുറത്താണ് ഈ ഹോട്ടല് വരുന്നത് ഓക്കെ അവിടെ പിന്നെ അടുത്ത് തന്നെ തൊട്ട അടുത്ത് തന്നെ ശംഖുമുഖം ബീച്ച് ഉണ്ട് കോവളം ബീച്ച് ഉണ്ട് പിന്നെ പഴവങ്ങാടിയത് ഗണപതിയുണ്ട് അവിടെല്ലമായി കറങ്ങണം ഇത് തൊട്ടടുത്ത് തന്നെ കിഴക്കേ കോട്ട എന്ന് പറഞ്ഞ സ്ഥലമാണ് തിരുവനന്തപുരം ഈ ആ ആ ഈ ക്ഷേത്രം തന്നിരിക്കുന്നത് മേസിൻ സൂവുണ്ട് ഒര് സൂവുണ്ട് ആ കുതിരേ കുതിരയുടെ പുറത്ത് കയറാം കുതിര റൈഡിംഗ് ഉണ്ട് ആ ആ കുളിച്ചുവന്നാണ് കയറേണ്ടത് അതാണ് എന്നുവച്ചാൽ ആണുങ്ങൾ മുണ്ട് മാത്രം ധരിക്കുന്നു പെണ്ണുങ്ങൾ സാരി ആ അല്ല പിന്നെ നിങ്ങൾക്ക് പിന്നെ അടുത്ത് വേറെ എവിടെയെങ്കിലും പോവാൻ താത്പര്യം ഉണ്ടോ കാണാൻ വെച്ചാൽ ബീച്ചുകളുണ്ട് അല്ല വേറെ സൂ ആ അവിടെ സൂവുണ്ട് സൂ ഉണ്ട് അതിനുമുമ്പ് അതൊക്കെയാണ് എന്ന് ഉണ്ടെങ്കിൽ പറയണം ഞാൻ ഓൺ ടൈം ഓക്കെ ക്ഷേത്രം കാണാമെങ്കിൽ അവിടെ ഒത്തിരി ക്ഷേത്രങ്ങളുണ്ടാവും ഈ നമുക്ക് അത് കഴിഞ്ഞിട്ട് പഴവങ്ങാടി ഗണപതിയും പഴവങ്ങാടി എല്ലാം ഉണ്ട് ഇതൊക്കെയാണ് നമ്മൾ ഇതൊക്കെയാണ് ഇപ്പോൾ മെയിന് ആയിട്ടുള്ളത് ഓക്കെ ഓക് ആചാരങ്ങളെല്ലാം സെയിം തന്നെയാണ് കാരണം വെച്ചാൽ വേറെയൊന്നും അല്ല ഒറ്റ കാര്യം പറ്റത്തുള്ളൂ മറ്റേ മറ്റുള്ള ക്ഷേത്രത്തിൽ കയറുന്ന പോലെ ഷർട്ട് ഒന്നും പകുതി ഇട്ടുകൊണ്ട് ഒന്നും കയറാൻ പറ്റത്തില്ല ഷർട്ട് ഉപയോഗിക്കാനേ പറ്റത്തില്ല ക്ഷേത്രം എന്ന് പറഞ്ഞാൽ അകത്തുനിന്ന് ഒരു മൺതരി പോലും പുറത്ത് കൊണ്ടുപോവാൻ പറ്റത്തില്ല അതാണ് മെയിന് ആയിട്ട് ഉള്ളത് അത്രയേ ഉള്ളൂ വേറെയൊന്നും ഇല്ല ആ പിന്നെ മൂന്ന് ഭാഗവായിട്ടാണ് ഇല്ലില്ലില്ല മൂന്ന് ഭാഗമായിട്ടാണ് മൂന്ന് ഭാഗമായിട്ടാ കാണുന്നത് മ്മ് മൂന്ന് ഭാഗമായിട്ടാണ് ഓ ഓക്കെ ഓൺ ടൈം ഞാനാ പന്ത്രണ്ടരയാവുമ്പത്തേന് ഓൺ ടൈം ഇവിടെ കാണും